ഹലോ ഇത് ഹോട്ടൽ ആസാദാണോ ഇത് തിരുവനന്തപുരത്തുള്ള മേരിനിലയം ഹോസ്റ്റലിൽ നിന്നാണ് വിളിക്കുന്നത് പോങ്ങുമൂട് ഉള്ളത് അവിടെ അൽഫാം ഉണ്ടോ ഒരു അൽഫാം കുഴിമന്തിയും എഗ്ഗ്ലെസ് മയോണൈസും മിൻറ്റ് ചട്ണിയും വേണം മയോണൈസ് എഗ്ഗ്ലെസ് തന്നെ വേണം പിന്നെ ഒരു ലെമൺ ആൻ ജിൻജർ ടീ വേണം അത് ഹോട്ടായിട്ട് നിങ്ങള്ക്ക് ഇ ഇത്രയും ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ ഓക്കേ എത്ര എത്ര സമയമെടുക്കും ഇവിടം വരെ കൊണ്ടുവരാൻ ഓക്കേ ഓക്കേ ഇതെല്ലാംകൂടി ആവറേജ് എത്ര കോസ്റ്റാ ഓക്കേ ശരി ഒരുപാട് ലേറ്റ് ആകില്ലല്ലോ അല്ലേ ശരി താങ്ക് യു